മഴ നമ്മുടെ കേരളത്തെ സംബന്ധിച്ച് ഒരു പ്രധാന പ്രശ്നം തന്നെയാണ് രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഴ എല്ലാ വർഷവും ഇങ്ങനെ തുടർന്നു കൊണ്ടിരിക്കുകയാണ് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് കുട്ടനാടും അതുപോലെയുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളപ്പൊക്കം ഉണ്ടായി അവരൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടനുഭവിക്കുന്നു അപ്പോൾ പിന്നെ വിനോദസഞ്ചാരികൾ ഇവിടെ വന്നാൽ അവർ മഴക്കാലത്ത് എന്തു ചെയ്യാനാണ് അവരകത്തിരിക്കത്തെ ഉള്ളു അവർ വെളിയിലോട്ടിറങ്ങി അവർ എന്തിനാണ് വരുന്നത് അവർ ഇവിടെ കാണാൻ വേണ്ടി പല സ്ഥലങ്ങളും കാണാൻ ഇഷ്ടം പോലെ കാണാനുള്ള സ്ഥലങ്ങൾ ഉണ്ട് കേരളത്തിൽ അവർക്കതൊക്കെ കാണാൻ വേണ്ടിയാണ് അവർ ഇത്രയും ദൂരെ വരുന്നത് അപ്പം ഈ മഴക്കാലം വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റത്തുമില്ല കാണാനും പറ്റില്ല പിന്നെ മഴ നമ്മൾക്കെല്ലാവർക്കും ബുദ്ധിമുട്ടാണ് അതിൽ പിന്നെ അവരുടെ കാര്യം പറയണോ വിനോദ സഞ്ചാരികളുടെ കാര്യം മഴ കാലം പിന്നെ നമുക്ക് ആകർഷണമാക്കണമെന്നുണ്ടെങ്കിൽ റോഡുകളും എല്ലായിടവും അപ്പടി പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ് കുഴിയും നമുക്ക് നടക്കാൻ മേലാ വെള്ളക്കുഴിയാണ് ഒത്തിരി അപകടങ്ങളുണ്ടാകുന്നു പിന്നെ അത് ഒഴുകി പോകാനുള്ള സംവിധാനങ്ങൾ എന്തൊക്കെ എങ്കിലുമൊക്കെ ഗവൺമെൻറ്റ് ചെയ്യണം റോഡ് നന്നാക്കണം ആദ്യമേ അതുകഴിഞ്ഞ് ഓടകളൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ ഒഴുകി പോകാനുള്ള സൗകര്യങ്ങളും എവിടെ ചെന്നാലും കുണ്ടും കുഴിയുമെല്ലാമാണ് വെള്ളം കെട്ടി കിടക്കുന്നു നമുക്ക് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാനും തോന്നതില്ല ചെള്ളയെല്ലാം പിടിച്ച് എല്ലാവർക്കും ഭയങ്കര പ്രശ്നം പിന്നെ വിനോദസഞ്ചാരികൾ പിന്നെ തോടുകളൊക്കെ വൃത്തിയാക്കണം എല്ലാം ചെളിപിടിച്ച് അഴുക്കായിട്ട് കിടക്കുന്നു തോടുകളും എല്ലാം ചെറിയ തോടുകളും എല്ലാം കൈവരികൾ ഒക്കെ ഉണ്ടാക്കണം വിനോദസഞ്ചാരികൾ അവിടെ ഇറങ്ങുമ്പോഴത്തേക്കിനും അവർക്ക് റോഡൊക്കെ നല്ല വൃത്തിയായിട്ടു കിടന്നാൽ തന്നെ അവർക്ക് ഇറങ്ങി നടക്കാനുള്ള സൗകര്യമുണ്ടായിരിക്കും നമുക്കും ഉള്ളതു പോലെ തന്നെ അവർക്കതിൽ കൂടുതലായിട്ട് അവർക്ക് ഇഷ്ടം വരും വിനോദസഞ്ചാരികൾ പിന്നെ മഴ ഇങ്ങനെ എല്ലാ വർഷവും ഇങ്ങനെ കൂടുതലായിട്ടു മഴ പെയ്തു കൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപൊക്കം പോലെ വന്നില്ല എന്നുള്ളേ ഉള്ളു എങ്കിലും പടിഞ്ഞാറുകാർ കുട്ടനാടുകാരെല്ലാം ഓരോ മഴക്കാലത്തും ഈ വർഷം തന്നെ ആണെങ്കിലും പല പ്രാവശ്യങ്ങളിലും അവർ വെള്ളപൊക്കത്തിന് അവിടെ നിന്ന് മാറി വേറെ സ്ഥലങ്ങളിലും ക്യാമ്പുകളിലും ഒക്കെ താമസിക്കുന്നുണ്ട് ഇതിനെ കൂടുതൽ ആളു ആളുകളെ ആകർഷിക്കാൻ പറ്റും എല്ലാ റോഡുകളും നന്നാക്കുകയാണെങ്കിൽ കൂടുതൽ വിനോദസഞ്ചാരികൾ വരും എല്ലാവർക്കും നല്ല പ്രയോജനകരമായിരിക്കും തോടും ഓടുകളും ഒക്കെ നന്നാക്കുകയാണെങ്കിൽ നല്ല പിന്നെ ഇപ്പോഴാണെങ്കിൽ ഓരോ സ്ഥലങ്ങളിലും പാലങ്ങളും അതുമിതുമെല്ലാം എല്ലാം നന്നാക്കുകയും എല്ലാം ചെയ്യുന്നുണ്ട് അതു പോലെ തന്നെ കുറേക്കൂടി റോഡെല്ലാം വൃത്തിയാക്കണം റോഡില്ലാത്ത ടാർ ചെയ്യാത്ത സ്ഥലങ്ങളിലെല്ലാം ടാറിങ്ങും എല്ലാം ചെയ്യണം